പാട്ട് പാടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കീബോർഡ് കൂടെ വായിക്കുന്നതാണ് കീബോർഡ് കൂടെ വായിക്കുമ്പോഴത്തേക്കും പാട്ടിന് കൂടുതൽ കേൾക്കാൻ ഇമ്പമുള്ളതും കൂടുതൽ രസം ഉള്ളതും ആക്കുന്നത് അതിൻ്റെ കൂടെ വായിക്കുന്ന സംഗീത ഉപകരണങ്ങളാണ് പാട്ട് തന്നെ പാടുന്നത് വളരെ നല്ലതാണങ്കിലും സംഗീത ഉപകരണങ്ങളോടൊപ്പം പാട്ട് ആസ്വദിക്കുമ്പോഴാണ് ആ പാട്ടിന് കൂടുതൽ പൂർണ്ണത ഉണ്ടാവത്തുള്ളൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത് കൂടുതൽ ആസ്വാദ്യവും കുറച്ച് കൂടെ അത് കേൾക്കുന്നവർക്കൊരു സന്തോഷമൊക്കെ തരുന്നത് കൂടെ സംഗീത ഉപകരണങ്ങൾ കൂടെ വായിക്കുമ്പോഴാണ് കീബോർഡിനൊപ്പം ഗിത്താറും പാട്ടു പാടുമ്പോൾ വായിക്കുകയാണെങ്കിൽ അത് ആ പാട്ടിനെ കൂടുതലും ഇമ്പമുള്ളതും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാനൊരു രസമൊക്കെ ഉണ്ടാവും കീബോർഡും ഗിത്താറും വളരെ വ്യത്യസ്തമായ രണ്ട് സംഗീത ഉപകരണങ്ങളാണ് കീബോർഡിനെന്നാണെങ്കിൽ അതിന് ഒരു സംഗീത ഉപകരണത്തിൽ തന്നെ വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം ആ പ്രയോഗിക്കാൻ സാധിക്കും പക്ഷേ ഗിത്താറിനാണെങ്കിൽ ഗിത്താറിൻ്റെ കമ്പികളിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ട് മാത്രമേ അതിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ പാട്ടു പാടുമ്പോൾ വളരെ നല്ല ഒരു സംഗീത ഉപകരണമാണ് ചെണ്ട മദ്ദളം ചേങ്ങില ഇതൊക്കെ പ്രത്യേകിച്ച് ഈ പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ ഇത്തരം വാദ്യോപകരണങ്ങളോട് കൂടിയാണ് പാട്ട് പാടുന്നത് പിന്നെ പാടുന്ന പാട്ടിനും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പം ഒരു ലളിതഗാനമാണ് പാടുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വളരെ വളരെ സാധാരണമായ വളരെ ചെറിയ സൗണ്ടുളള സംഗീത ഉപകരണം ആയിരിക്കും നല്ലത് വളരെ ആഘോഷത്തോടെ ഭയങ്കര ആരവം ഉള്ള വളരെ ശക്തമായ പാട്ടുകളൊക്കെ ആണങ്കിൽ ചെണ്ടമേളം ചേങ്ങില ഈ അങ്ങനത്തെയൊക്കെ ഉള്ളതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പം ഈ ഉത്സവത്തിനൊക്കെ ഈ നാടൻ പാട്ടുകളൊക്കെ പാടുമ്പോൾ അതിന് അതിൻ്റേതായ സംഗീത ഉപകരണങ്ങളുണ്ട് ഓരോ സംഗീതത്തിനും ചേരുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ അത് കേൾക്കാനായിട്ട് രസം ഉള്ളതാകുന്നത്